മത്സ്യബന്ധനം ഒരു സാഹസികമായ തൊഴിൽ മേഖലയാണ് അത് കടലിൽ പോയി പ്രക്ഷുബ്ധമായ കടലിൽ പോയി വള്ളവും വലയുമൊക്കെ ആയിട്ട് ബോട്ടുകളൊക്കെ പോയി ഉൾക്കടലിലൊക്കെ പോയി പിടിച്ചുകൊണ്ടു വരേണ്ട ഒരു തൊഴിലാണ് അത് ചിലപ്പോൾ ദിവസങ്ങളോളം കടൽ ഉൾക്കടലിലൊക്കെ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് അതിൽ മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് അവരുടെ രീതി അനുസരിച്ചു അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചു അല്ലെങ്കിൽ അത്ര ആരോഗ്യകരമായ ഒരു സാഹചര്യമല്ല അവർക്ക് ഉള്ളത് അവർ കുറച്ചു കൂടെ പുരുഷന്മാരെ അപേക്ഷിച്ചു കുറച്ചു കൂടെ ദുർബലരായതു കൊണ്ട് അവ പോലെയുള്ള സാഹസികമായ കൃഷി തൊഴിലുകൾ ചെയ്യുക ഭാഗം ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതിനാൽ അവർ പുരുഷന്മാരായ ആളുകൾ മത്സ്യ തൊലളികൾ കടലിൽ ഉൾക്കടലിലൊക്കെ പോയി മത്സ്യം പിടിച്ചു കൊണ്ടു വരുന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ള തൊഴിലുകളൊക്കെ സ്ത്രീകളാണ് ചെയ്യുന്നത് അത് മത്സ്യം കൊണ്ടു വന്നാൽ അത് തരം തിരിക്കുക അത് വൃത്തിയാക്കുക അത് മറ്റൊരു കടകളിൽ കൊണ്ട് കൊടുക്കുക അത് മൽസ്യ വില്പന നടത്തുക അതൊക്കെ അതുപോലെയുള്ള മേഖലകളൊക്കെ സ്ത്രീകൾ ആണ് ചെയ്യുന്നത് അത് പുഷന്മാർ പല ദിവസങ്ങളും കടലിലൊക്കെ ആയതിന് ശേഷം ഒന്ന് തിരികെ വന്നു കഴിയുമ്പോൾ അവർക്ക് ബാക്കി ജോലികൾക്ക് കൂടെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് കൊണ്ട് സ്ത്രീകളുടെ ഈ സഹായം വളരെ അവർക്ക് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ വീടുകളിൽ എന്നാൽ മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരേയും പരിചരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മൂലം അവർ സ്ത്രീകളെ ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ട് വളരെ പുരുഷനെ പോലെ തന്നെ സ്ത്രീകളും ഈ കുടുംബം നടത്തി കൊണ്ടു പോകുന്നതിൽ ഈ തൊഴിൽ ചെയ്യുന്നതിൽ അവരെ കൊണ്ട് ആകുന്ന വിധത്തിലൊക്കെയുള്ള ഒരു സഹായം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് ഈ തരം തിരിക്കുന്ന പോലെയുള്ള പണികൾ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന പണികളൊക്കെ പുരുഷന്മാരേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കാണ് അവർ ഉള്ളെ അത് വളരെ തന്മയത്തത്തോടെ വളരെ ഉത്സാഹത്തോടെ വളരെ ക്ഷമയോടെ ഒക്കെ ചെയ്യേണ്ട പണികളാണ് വൃത്തിയാക്കുക എന്നുള്ളത് അത് നാറ്റമൊക്കെ സഹിച്ചു ചെയ്യുക അതെല്ലാം വളരെ ക്ഷമയോടെ ഉത്തരവാരിത്തോടെ അത് സ്ത്രീകൾ ചെയ്തു പൂർത്തിയാക്കാറുണ്ട് അത് കുടുംബത്തിനും സമൂഹത്തിനും തന്നെ ഒരു മതൃകാപരമായ ഒരു പ്രവർത്തിയാണ് അവർ ചെയ്യുന്നത് അത് അതുകൊണ്ട് വളരെ പുരുഷന്മാർക്ക് അവർക്ക് വളരെ ദിവസങ്ങൾക്ക് ഉള്ളിൽ ജെസ്റ്റ് ഒരു അധ്വാനത്തിന് ശേഷം തിരിച്ചു വിശ്രമിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് അത് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഒരു ഏതാനും ദിവസങ്ങൾ വിശ്രമിച്ചതിനു ശേഷം വീണ്ടും അവർക്ക് വീണ്ടും മത്സബന്ധനത്തിന് കടലിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അതെല്ലാം അവർക്ക് മറ്റു ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് കുറച്ചു സമയം വീടുകളിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ ചിലവഴിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന സ്ത്രീകളുടെയും ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അത് വളരെ പ്രയോജനപ്രദമാണ്